ഹലോ കസ്റ്റമർ സർവീസ് അല്ലെ ആ ഞാനൊരു പാൻറ് ഓർഡര് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കളര് ചേഞ്ചാണ് ഇവിടെ ഇതൊന്ന് മാറ്റി റിട്ടേൺ അടിച്ച് തരണമായിരുന്നു ഇപ്പോഴത്ത ഇതിൻ്റെ സിബും അതും കാര്യങ്ങളുമൊക്കെ ലൂസാണ് ഇത് റിട്ടേൺ കൊടുത്തിട്ട് വേറെ നമ്മള് അതേ റേട്ടിനുള്ളത് പിന്നീട് ഓർഡർ ചെയ്യാനുള്ളൊരു നിലയ്ക്കാണ് ഇപ്പോള് നില്ക്കുന്നത് ഇതിപ്പം എനിക്ക് സൂട്ടബിളുമല്ല പോരാത്തതിന് ഇതിൻ്റെ സിബും കാര്യങ്ങളുമൊട്ട് വർക്കിങ്ങുമല്ല പിന്നെ കളർ ചേഞ്ചാണ് വന്നിട്ടുള്ളത് ഇപ്പോള് തെറ്റായ ഓർഡറാണ് ഇപ്പോള് ഞാൻ ഓര്ഡര് ചെയ്ത സാധനമല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതെങ്ങനെയെങ്കിലും റിട്ടേൺ അടിച്ചിട്ട് വേറെ നല്ലയൊരെണ്ണം വന്നെടുക്കാം അപ്പം നിങ്ങളെപ്പോഴാണ് ഇനി ഇതിപ്പോള് ഞാൻ ഇന്ന് റിട്ടേണ് അടിച്ചാല് നിങ്ങള് ഇനിയെപ്പോഴാണ് വന്നെടുക്കുക ആ ഓക്കെ അപ്പോള് അങ്ങനെയൊക്കെയാണ് ഓക്കെ എന്നാല് ഞാനിത് റിട്ടേണടിച്ച് വെച്ചേക്കാം നിങ്ങളിവിടെ വന്നെടുത്തേക്കൂ